ഇപ്പോൾ കേരളത്തില് കർഷകർക്ക് വേണ്ടിട്ട് ഗവൺമെൻറ് ഒരുപാട് സബ്സിഡി നിരക്കിൽ സാധനങ്ങളും എന്താ പറയുക സബ്സിഡി നിരക്കില് ഇപ്പോൾ വളങ്ങൾ ആയിക്കോട്ടെ വിത്തുകൾ ആയിക്കോട്ടെ എല്ലാം തന്നെ നൽകി കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ആയിട്ട് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും കൊണ്ട് വന്നിട്ട് ഉണ്ട് അപ്പോൾ അത് നല്ല ഒരു തീരുമാനം ആയിട്ട് ആണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുക കർഷകർക്ക് അവര് നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ട് അറിഞ്ഞ് മനസിലാക്കി ഒരുപാട് സഹങ്ങൾ ചെയ്തും കൊടുക്കാൻ പോകാൻ വേണ്ടിട്ട് സാധിക്കുവാണെങ്കിൽ കൃഷിയും മാറ്റ് കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകാണ്ട് നല്ല പദ്ധതികളും നല്ല സഹായവും ആയിക്കോട്ടെ ജൈവ കൃഷിക്ക് അങ്ങനെ ലോണ് കാര്യങ്ങളും എല്ലാം നൽകി അവരെ മുന്നോട്ട് കൊണ്ട് വരുന്നതിലൂടെ നമുക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിന് വേണ്ട സാധനങ്ങള് നമുക്ക് തന്നെ കൃഷി ചെയ്തു എടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും അത് ഒരു നല്ല കാര്യം ആയിട്ട് ആണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ സർക്കാറ് ചെയ്തു കൊടുക്കുന്നതോട് കുടി തന്നെ എല്ലാവർക്കും വലിയ ഒരു ഉപകാരം ആയിട്ട് ആണ് അത് നിലവില് നിൽകുന്നത് ഇപ്പോൾ ലോണും കാര്യങ്ങളും ധന സഹായം ആണെങ്കിലും എന്താ പറയുക ജൈവ കൃഷിക്ക് വേണ്ടിട്ട് ഉള്ള വളങ്ങള് കാര്യങ്ങള് എന്താ പറയുക അങ്ങനെ ഉള്ള പദ്ധതികളും ഇപ്പോൾ ഗവണ്മെൻറിൻ്റെ മുഖേന നടക്കുന്ന കൊണ്ടും നല്ല ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്